ആൻറി ആ ഞാനേ പുറത്തു നിന്നുള്ള ഒരാൾ ആയിരുന്നേ ഞാൻ ഇവിടെ ഉള്ളതല്ല അപ്പം ഞാൻ എപ്പൊഴും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഈ തെങ്ങ് തേങ്ങ ഇതൊക്കെ എന്തുവാ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് തരുമോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് പോലും കേരളത്തിൽ മാത്രമേ ഉള്ളോ അപ്പോൾ ആ ഓ അപ്പം ഇതിൻ്റെ ഈ എന്തോ ഇല പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ഈ കായൊക്കെ എന്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കുറേ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്തിനൊക്കെ ആയിരുന്നു ആ ഇത്രയും വർഷം എടുക്കും അല്ലേ ആ അങ്ങനെ കരിക്ക് കരിക്കിൻ്റെ ആ ഒരു ഇതൊക്കെ എല്ലാവരും കഴിക്കുവേം അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കില്ലേ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ് ആണല്ലേ എന്ത് രോഗമൊക്കെ വരുമ്പോൾ ഈ കരിക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശരിയാണോ ആണല്ലേ ഈ കരിക്കിൽ നിന്നാണോ അപ്പോൾ ഈ തേങ്ങ അങ്ങനെ മാറുന്നത് കരിക്ക് ആയതിന് ശേഷം തേങ്ങ ഒക്കെ കഴിക്കുവേം ചെയ്യും ആണല്ലേ തേങ്ങ തേ തേങ്ങ എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇതല്ലേ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാറുണ്ടോ വേറെ ആണല്ലേ ആണല്ലേ ആണല്ലേ ആ ശരി ആൻറി എനിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു ഇപ്പോൾ അറിയാൻ പറ്റി താങ്ക് യു കേട്ടോ ശരി ശരി